ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാങ്ങിയ ഒരു വാഹനമാണ് ഹിമാലയ എന്ന് പറയുന്ന ബൈക്ക് ആ ബൈക്കിന് ഞാൻ വളരെ സുന്ദരമായിട്ടും വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ പരിപാലിച്ച് കൊണ്ടു പോകുന്നത് പുതിയ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചു വാങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ അത്രയും സൂഷ്മതയോടുകൂടി എല്ലാവിധ കെയറിങും കൊടുത്തുകൊണ്ട് എല്ലാ സർവീസുകളും ചെയ്തുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ എൻ്റെ വാഹനത്തെ ഞാൻ കൈകാര്യം ചെയ്യാറുള്ളത് ഈ അടുത്തു വാങ്ങിയത് കൊണ്ട് തന്നെ ഈ ഇതുവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ മുഷിപ്പോ എൻ്റെ വണ്ടിയിൽനിന്ന് എനിക്ക് അനുഭവിച്ചിട്ടില്ല എന്നിരുന്നാലും വർഷങ്ങൾ വൈകും തോറും വാഹനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങളും വരുമെന്ന് എനിക്കറിയാം അതിനെല്ലാം നല്ല രീതിയിൽ സർവീസുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നാണ് എനിക്കീ സമയത്ത് പറയാനുള്ളത് അതൊരു വെരി ഞാൻ വിദൂര യാത്രകളിൽ പോകുമ്പോൾ വിദൂര യാത്രകളിൽ നമ്മൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് ഓടുന്ന സമയത്ത് എഞ്ചിനും ടയറും കാര്യങ്ങളിലെല്ലാം ഒരുപാട് ഹെവി ഹീറ്റ് അനുഭവം എടുക്കുമ്പോൾ ഒരുപക്ഷെ ടയറ് പൊട്ടാനോ ഒരുപക്ഷെ എൻഞ്ജിൻ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഇന്നൊരുപാട് ലോങ്ങ് യാത്രകൾ പോകുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് വണ്ടി ബൈക്ക് യാത്രകരുണ്ട് അവരെല്ലാവരും ചെയ്യുന്നതു പോലെ തന്നെ ഒരുപാട് സർവീസുകൾ ബൈക്ക് ഷോപ്പുകൾ ബൈക്ക് നന്നാക്കാനുള്ള ഒരുപാട് കടകളും കുറച്ച് കാര്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയിലെ സർവസ്ഥലത്തും അവൈലബിളാണ് ഇനി ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ഒരുപാട് മലമ്പ്രദേശങ്ങളിലോ കാട് പ്രദേശങ്ങളിലായിരിക്കണം ഉണ്ടവാതിരിക്കുക അതിനുള്ള എല്ലാ സേഫ്റ്റി കിറ്റുകളും നമ്മൾ കയ്യില് ഭദ്രമാക്കിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള യാത്രകൾ വിദൂരയാത്രകൾക്ക് നമ്മൾ പുറപ്പെടുക എന്നിരുന്നാലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നു നേരിടേണ്ടി വന്നാലും ഇത്തരത്തിലുള്ള വിദൂര യാത്രകളിൽ ഉല്ലാസവും വിനോദവും കണ്ടെത്തുന്ന ഉത്തേജകം കണ്ടെത്തുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് യാത്രാ പ്രേമികൾ ഇന്ന് ലോകത്തുണ്ട് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിക്കാണാതെ അതിനെയെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ടും ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളുമായിട്ട് മാറ്റാനാണ് ഇന്നത്തെ പല യുവ തലമുറകളും യുവ യുവാക്കളും അതിനെയെല്ലാം കാണുന്നത്